ശരി ശരി ഇപ്പം ആണേൽ നമുക്ക് മാർച്ച് ക്ലോസിങ് ആയതുകൊണ്ട് നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു ടെൻ പെർസന്റ് ഓഫർ ഉണ്ടായിരുന്നു മേഡം മേഡം ഏത് മോഡലാണ് നോക്കുന്നത് ഓക്കേ ഓക്കേ അത് അപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് മൈലേജ് ഉണ്ട് ഹൈബ്രിഡ് ആണ് അപ്പോൾ നമുക്ക് പെട്രോളും ഓടും ഇലക്ട്രിക്കൽ വെഹിക്കിളുമാണ് അപ്പം നമുക്ക് അതെയതെ ഹൈബ്രിടായിട്ടാണ് അപ്പം അത് അതിന് ഒരുലക്ഷത്തീ ഇരുപതിനായിരം രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ പല ആ ഇ എം ഐ ഉണ്ട് ആ ഡൗൺ പേയ്മെന്റ് മേഡത്തിൻ്റെ സിബിൽ സ്കോർ അനുസരിച്ചാണ് നമുക്ക് ചെയ്യുന്നത് മേഡം സിബിൽ സ്കോർ സിബിൽ സ്കോർ ഒക്കെയുള്ള ആളല്ലേ ആ അപ്പം നമുക്ക് ഉടൻ തന്നെ വരാം നമുക്കിത് കട്ടപ്പന ഷോറൂമാണ് കട്ടപ്പനയല്ലെ നമ്മുടെ നിയറെസ്റ്റ് ഷോറൂം കട്ടപ്പന വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കാണാൻ പറ്റും അതെയതെ മേഡത്തിന് എന്നാണ് സൗകര്യമുള്ള ദിവസം വന്നാൽ മതി വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാം വരുന്നതിന് മുൻപായിട്ടൊന്ന് വിളിച്ചറിയിക്കുവാണെങ്കിൽ ഞാനും അവിടെ കാണാം ശരി ശരി ആ

ശരി ശരി ആ ഓക്കേ ആ ഹാ ഹ

ഫുൾ പേയ്മെൻറ്റാണെങ്കിൽ നമുക്ക് എന്ന് തന്നെ വണ്ടി കൊണ്ടുപോകാം നിങ്ങൾക്ക് പിന്നെ ബാക്കി ഫോർമാലിറ്റീസ് നമ്പർ കിട്ടാനുള്ള താമസമൊക്കെയുള്ളൂ എന്നാലും നമുക്ക് ഇല്ല ഒരു ദിസത്തെ താമസം വരും നമുക്ക് പൈനാവിൽ പോയിട്ട് അതിൻ്റെ പ്രൊസീജിയർ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് അല്ലല്ല വൺ നമ്മൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി തന്നു വിടുകയുള്ളു അങ്ങനെ അതിൻ്റെ അതെ അതെ ആ ശരി ശരി ആ ഓക്കെ താങ്ക്യൂ